ഞാനൊരു ക്രിസ്ത്യനാണ് അപ്പം ഞങ്ങളുടെ പള്ളിയിൽ കോവിഡ് കോവിഡിനുശേഷം അല്ല കോവിഡിൻ്റെ സമയത്ത് ഓൺലൈനിലായിരുന്നു മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് കോവിഡിനുശേഷമത് ഓൺലൈനിൽ തന്നെ കുറച്ചുനാൾ തുടർന്നു പിന്നീട് ഇപ്പം ചർച്ചിൽ വരാത്തവർക്കും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും ഒക്കെ വേണ്ടി പുതിയ പുതിയ ലൈവ് മീറ്റിങ്ങുകളൊക്കെ വരാനായിട്ട് തുടങ്ങി അതുമൂലം കുറേ പേർക്ക് ഇപ്പം പോകാൻ പറ്റാത്തവർക്കും ചർച്ചിലെ ഒരു ദിവസം വരാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് മീറ്റിങ് എവിടെ അവരെവിടെ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് അത് പങ്കെടുക്കുവാനൊക്കെ സാധിക്കുന്നുണ്ട് അതിൻ്റെയൊരു ഡിസഡ്വാൻ്റേജെന്നു പറയുന്നത് അത് ആളുകളെ കൂടുതലും മടിയന്മാരാക്കും കാരണം കോവിഡിനു മുൻപൊക്കെ ആണെങ്കിൽ ചർച്ചിൽ പോവാം അല്ലെങ്കിൽ പള്ളിയിൽപ്പോവുകയെന്ന് പറയുന്നത് വളരെയൊരു സന്തോഷകരമായ കാര്യമായിരുന്നു കോവിഡിനു ശേഷമാണെങ്കിൽ എല്ലാവരും വീട്ടിൽ ഇരുന്ന് അങ്ങനെയായതുകൊണ്ട് പിന്നെ ചർച്ചിൽ പോവുന്നതും എല്ലാം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു മടി എന്ന രീതിയിലൊക്കെ ആയി